ഹലോ

അതെ അതെ അതെ ആ ഏത് സിമ്മാണ് വേണ്ടത് ഏർടെൽന്റെ എയർടെല് എയർടെൽ ആണ് വന്ന് കൂടുതലായിട്ട് എവിടെ ചെന്നാലും കിട്ടണ ഒരു സിമ്മ് എയർടെൽ ആണുള്ളത് ആ അതെ അതെ അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളെ ആധാർ കാർഡ് വേണം പിന്നെ അതുപോലെ ഫോട്ടോസ് ലൈവായിട്ടുതന്നെ നിങ്ങൾ ഓഫീസിലേക്ക് വരണം എന്നാലേ നിങ്ങളെ ലൈവ് ആയിട്ടുള്ളൊരു ഫോട്ടോസ് കിട്ടുകയുള്ളൂ ഓക്കെ ഓക്കെ ഓഫീസ് വരുന്നത്ത് മലപ്പുറം സെൻട്രർ ആയിട്ട് അപ്പം നിങ്ങൾക്ക് ത്രീ ജി സിം അല്ലല്ലോ ഫോർ ജി അല്ലേ വേണ്ടത് ആ ഫൈവ് ജി സിമ്മ് ആപ്പെല്ലാം ഉണ്ട് റേഞ്ച് പറയുമ്പോൾ റേഞ്ച് എല്ലായിടത്തും എയർടെല് ഫൈവ് ജി ലഭിക്കും പിന്നെ എക്സ്പെൻസീവ് കുറച്ച് കൂടുതലാണ് റേറ്റ് കുറച്ച് കൂടും അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ആ ഓഫറും കാര്യങ്ങളൊക്കെ ആ അത് ഇപ്പോൾ ഇപ്പോൾ ഫൈവ് ജി നിങ്ങൾക്ക് എയർട്ടൽ നിങ്ങൾക്ക് ഫൈവ് ജി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഇരുപത്തെട്ട് ദിവസത്തേക്ക് രണ്ട് ജി ബി നെറ്റും പിന്നെയതുപോലെ നൂറ് എസ് എം എസ് ആയക്കാനുള്ള ഒരു പ്ലാനാണ് ഉള്ളത് അതിന് റേറ്റ് വരുന്നത്ത് മുന്നൂറ്റെഴുപത്തഞ്ച് ഉറുപ്യ പിന്നെ ആ മുന്നൂറ്റെഴുപത്തഞ്ച് അപ്പം ഈ ഒരു പ്ലാൻ ആ അതെ അതെ ആ അൻലിമിറ്റിഡ് കോളും ആ നൂറ് എസ് എം എസും ഉണ്ടാവും അപ്പോൾ ഇത് ആ ആ മുന്നൂറ്റി എഴുപത്തഞ്ച് നാന്നൂറ് രൂപ അപ്പോൾ ഇതിന് രണ്ട് ജി ബിക്ക് പുറമേ ഫൈവ് ജി നിങ്ങൾക്ക് കിട്ടും അപ്പം അത്രയും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഏർട്ടലും വി ഐ വി ഐ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അധികസ്ഥലത്തൊന്നും വി ഐ നമുക്ക് ലഭിക്കൂല്ല പിന്നെ പോരാത്തതിന് കിട്ടൂല്ല പിന്നെ ആ വി ഐൻ്റെ ഫൈവ് ജി പറഞ്ഞിട്ടുമില്ലല്ലോ ഫോർ ജി ഇപ്പം നിലവിലുള്ളൂ ആ ആ ആ ആ ആ ആ അതെയതെ അതെ ഇപ്പം പുതിയൊരു സ്കീം പോലെ ഇറക്കിയാണ് പന്ത്രണ്ട് റ്റു ഉച്ചക്ക് പന്ത്രണ്ട് വരെ അൻലിമിറ്റ്ഡ് നെറ്റ് അപ്പോൾ ആ ആ ഒരു ആ ആ അതുള്ളതാണ് അത് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പ്ലാൻ ആണ് ഓലെ ഇറക്കുന്നത് ഡയലി രണ്ട് ജീ ബി നെറ്റ് ഉണ്ടാവും അതിൽ പിന്നെ എക്സ്ട്രാ പന്ത്രണ്ട് റ്റു പന്ത്രണ്ട് അൻലിമിറ്റഡ് നെറ്റും അപ്പം ഓക്കെ എന്നാൽ ആ അപ്പോൾ ഓക്കെ അപ്പം നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് സിമ്മു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് വരണം അപ്പം ഓക്കെ താങ്ക് യൂ ഓഫീസ് മലപ്പുറം ആ അതെ അതെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ അഫ്നാൻ

നിങ്ങൾ ഓഫീസിലേക്ക് വരണം